കേരളത്തില് കൂടുതലും അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത് ആണെങ്കിലും ഈ പറയുന്നത് പോലെ അന്ധവിശ്വാസങ്ങളൊക്കെ നല്ലവണ്ണമുള്ള സ്ഥലമാണ് ഞങ്ങൾ സാധാരണ നാട്ടിൻ പുറത്തുകാരാണല്ലോ അപ്പോൾ അതിന്റേതായ ഒരു അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇപ്പോൾ അന്ധവിശ്വാസമാണന്ന് അംഗീകരിക്കാറുമുണ്ട് എല്ലാവരും അതിൽ ചിലത് എന്ന് പറയുന്നത് നമ്മൾ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുന്ന സമയത്ത് പൂച്ച കുറുകേ ചാടി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തിനാണോ പോകുന്നത് ആ കാര്യം നടക്കില്ല അതില് എന്തെങ്കിലും ആപത്തുണ്ടാകും എന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസങ്ങള് അതുപോലെ വെറുതേ ഇരിക്കുന്ന സമയത്ത് കാലാട്ടി കൊണ്ട് ഇരുന്നു കഴിഞ്ഞാല് നമ്മളുടെ അച്ഛനും അമ്മക്കും ദോഷം വരും അങ്ങനെ പറയുന്നത് ഒരു അന്ധവിശ്വാസമാണ് അതുപോലെ തന്നെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് രണ്ട് മൈനേനെ കാണാതെ കാണാതെ ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞാല് ആ ദിവസം വഴക്ക് കേൾക്കും എന്ന് പറയുന്നത് അതുപോലെ ഒരു കാതില് തൊട്ട് കഴിഞ്ഞ് മറ്റേ കാതില് തൊട്ടില്ല എങ്കില് ഈ കാതിലെ കമ്മല് പോകുമെന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് അന്ധവിശ്വാസങ്ങളുള്ള സ്ഥലം തന്നെയാണ് ഞങ്ങളുടെ പ്രദേശവും